ആ എനിക്ക് കേരളത്തിൽ ഒരുത്തല് വരാൻ വേണ്ടിയിട്ട് ആയിരുന്നു അപ്പം ഡിഷസ്സും കാര്യങ്ങളും അക്കോമഡേഷനും എല്ലാം വേണം അപ്പം ഫേമസ് ആയിട്ട് സീ ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെ ഒക്കെയാണ് ഉള്ളത് ആ ഓക്കെ എനിക്ക് ഇപ്പോൾ ഒരു എല്ലാം വേണം ഒരു നാല് ദിവസത്തേക്ക് ആണ് ബഡ്ജറ്റ് നോക്കുന്നത് നാല് ദിവസത്തേക്ക് അപ്പം സീ ഫുഡ് മാത്രം പോര പുറമേ ഉള്ള ബാക്കി ഉള്ള ഫുഡും വേണം അറേബ്യനും അങ്ങനെ എല്ലാം ഇപ്പോൾ മെയിനായിട്ട് കോൺസൻട്രേറ്റ് ചെയ്യുന്നത് സീ ഫുഡിലാണ് ആ അപ്പം എന്താണ് പറയുക നമ്മൾ ഇത് വരെ കഴിക്കാത്ത മീൻ ഒക്കെ മതി ഇപ്പോൾ ക്രാബും അങ്ങനത്തെ ഒക്കെ ഇല്ലേ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉള്ള കൂന്തൾ അങ്ങനത്തെ സംഭവം ഒക്കെ മതി അപ്പം അതിൻ്റെ ഒരു വെറൈറ്റീസ് നോക്കാൻ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അല്ല ഇവിടെ ഹോട്ടലിൽ സ്പെഷ്യൽ ആയിട്ട് ഉള്ള ഏതാണ് ഉള്ളത് അതൊക്കെ മതി ആ ഓക്കെ

ആ ഓക്കെ അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്യേണ്ടി വരുവോ ആ ഓക്കെ ആ അപ്പം ഈ മന്ത് ഒരു ഈ വീക്ക് തന്നെ ആയിരിക്കും വരുക ഒരു പതിനാല് പതിനഞ്ച് അടുപ്പിച്ച് ആയിരിക്കും വരുക അപ്പം അപ്പോഴത്തേക്ക് ആ ബ്രോഷറും ഒന്ന് അയച്ച് തരുവോ മെനു കാർഡും ആ ഇപ്പോൾ പേയ്മെൻറ്റ് റിലേറ്റ് ചെയ്യണോ മ് ആ അപ്പോൾ അഡ്വാൻസ് ഒന്നും വേണ്ട അല്ലേ ആ അപ്പം എക്സാക്റ്റ് ലൊക്കേഷൻ ഒന്ന് അയച്ചുതരണം ആ ഇനി പിന്നെ വരുന്ന ഡേറ്റും കൂടെ ഞങ്ങൾ മെൻഷൻ ചെയ്ത് ഇടാം ആ ഈ നമ്പർ തന്നെ വാട്ട്സ്ആപ്പ് ഉണ്ട് കേട്ടോ ആ ഓക്കെ